നമുക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമെന്നു പറയുന്നത് എഴുത്തുകാരിൽ വൈക്കം മുഹമ്മദ് ബഷീറാണ് മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ കേൾക്കാനൊക്കെ ഭയങ്കര മനോഹരമാണ് നമുക്ക് സ്കൂളുകളിൽ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് അതു നമ്മളെത്ര എന്നാ പറയുന്നത് ജീവിതത്തിൽ മുന്നോട്ടു പോയാലും ആ ചെറുപ്പത്തിൽ പഠിച്ച ആ ഒരു അനുഭവവും നമ്മുടെ ജീവിതത്തിൽ നിന്നു നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇന്നും സ്കൂളുകളിൽ നമ്മുടെ കേരളാ സിലബസ്സിലിന്നും ആ പുസ്തകം ആ ഒരു പാഠഭാഗവും നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് വരെയും പഠിക്കാനായിട്ട് അവിടെ നിന്ന് സർക്കാരവിടെ നിന്ന് ആ പാഠം കൊടുക്കുന്നതു തന്നെ അത്രത്തോളം ബഷീറിനെ പറ്റിയുള്ള ആ ഒരു അനുഭവമുള്ളതു കൊണ്ടാണ് അത്ര നല്ല ഒരു കഥാകൃത്താണ് ബഷീർ നമുക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിലൊരിക്കലും മറക്കാത്തൊരു വ്യക്തിയാണ് അത്രത്തോളം ഇഷ്ടവുമാണ് ബഷീറിനെ ബഷീറിൻ്റെ കഥകളൊക്കെ കേൾക്കാൻ പ്രത്യേകിച്ച് പാത്തുമ്മാൻ്റെ ആട് നമ്മുടെ ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥ തന്നെയാണ്